ആ ഹലോ ആ അതെ ആ സർ പറഞ്ഞോളു ആ പണി വലിയ കുഴപ്പമൊന്നുമില്ല സാർ പക്ഷെ ഇപ്പം പൊതുവേ വർക്ക് വരുന്നതൊക്കെ കുറവാണ്

ആ ഞങ്ങൾ നോക്കുന്നുണ്ട് സർ മാക്സിമം പക്ഷെ ആൾക്കാർ വരുന്നത് ഇപ്പം ബയങ്കര കുറവാണ് അയ്യോ അത് അത്ര അയ്യോ അത് അത്ര കാര്യമായിട്ടൊന്നും ഇല്ല സാർ അത് ഇങ്ങനെ എന്തോ മറ്റേ ഇഷ്ടികയെക്കെ മാറ്റി വച്ച സമേല് സമയത്ത് അറിയാണ്ട് കൈ തട്ടിയൊന്ന് തലയിലേയ്ക്ക് വീണതാണ് അപ്പം ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു നാല് സ്റ്റിച്ച് ഉണ്ട് ഇപ്പോൾ ആ ബംഗാളി ലീവിലാണ്

ആ ഇൻഷുറൻസൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആ ഈ പന്ത്രണ്ട് പേരിൽ എട്ട് പേരെ വരുന്നുള്ളു ഏ ആ ബാക്കി ഉള്ളവർക്കൊന്നും വയ്യ ഇപ്പം ഭയങ്കര പനി സീസൺ അല്ലേ അപ്പം എല്ലാവർക്കും പനിയും പിന്നെ അങ്ങനെയെക്കെയായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈ സംഭവം മറ്റെ തലയ്ക്ക് വീണത് അങ്ങനെയെക്കെ ആയി ഇപ്പം ലീവിലൊക്കെയാണ് പിന്നെ ഇവർ കുറേ നാട്ടിലും ഏ അല്ല കേട്ടിട്ട് അല്ല അവർക്ക് കുറേ പേർക്ക് പനിയും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ കുറേ എണ്ണം വീട്ടിൽ പോയി ആ അങ്ങനെ ലീവ് ആയിട്ട് പോയേക്കുവാണ് ലീവ് എടുത്തിട്ട് അപ്പം അത് കൊണ്ടാണ് അല്ല അല്ല വെറുതെയാണോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് എന്തോ അറിയാണ്ട് എന്തോ പറ്റിപ്പോയതാണെന്നാണ് പറഞ്ഞത് ഇഷ്ടിക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വച്ച സമയത്ത് അറിയാണ്ട് തട്ടി അങ്ങ് വീണതാണെന്നാണ് പറഞ്ഞത് പടിയിൽ താഴെ നിൽക്കുന്നുണ്ടായിരുന്നുത്രേ ആൾ അപ്പോൾ തലയ്ക്ക് വീണതാണെന്നാണ് പറഞ്ഞത്

ഓ ഓ ആയിക്കോട്ടെ സാർ ആ ഇപ്പോൾ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട് ഇൻഷൊറൻസ് ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പറയാം സാർ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി ഒന്ന് കോണ്ടാക്ട് ചെയ്തു തന്നാൽ മതി ആ അല്ലെങ്കിൽ നമ്മൾക്ക് പണി വരുമല്ലോ ആ ആ ആ ഞാൻ നോക്കുന്നുണ്ട് ഓ

അല്ല അവർക്ക് മറ്റേ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ അത്കൊണ്ട് കുറച്ച് പൈസ കൊടുത്താൽ മതി ആയിരിക്കും നമ്മൾ ഇപ്പം എന്തായാലും നമ്മുടെ പണി സൈറ്റിൽ സംഭവിച്ചത് കൊണ്ട് നമ്മളുടെ പേരിലായിരിക്കും ആ ഒരു കേസ് അല്ലെങ്കിൽ കാര്യങ്ങൾ വരുന്നുണ്ടാവുക ഇപ്പോൾ പോലീസുകാർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു എന്താണ് പറ്റിയതെന്ന് ഉള്ളതൊക്കെ അപ്പം ഞാൻ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇപ്പം ഡിസ്ചാർജ് ചെയ്തിട്ട് അയാൾ വീട്ടിലുണ്ട് അപ്പം ഇപ്പം വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ആ റസ്റ്റ് പറഞ്ഞേക്ക ഇപ്പം തലയിൽ തലയ്ക്ക് ഒരു നാല് സ്റ്റിച്ചുള്ളത് കാരണം ഇനി ഇപ്പോൾ മറ്റെ തലയിൽ കൽപ്പണി ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും ഇപ്പം എന്തായാലും ഇപ്പം അവന് രണ്ട് ദിവസത്തെ റസ്റ്റ് കൊടുത്തേക്കുവാണ് ഏ ഇപ്പം അത്ര കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ പനി സീസൺ ആയത്കൊണ്ട് അതിന് അനുസരിച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവന്മാർക്ക് ഈ ആ ആ പിന്നെ ഇവന്മാർക്ക് ഈ വൃത്തിയും വെടിപ്പുമൊക്കെ കുറച്ച് കുറവായത് കൊണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല ആ അപ്പം എന്നാൽ ശരി സാർ വയ്ക്കട്ടേ ആ ഓക്കെ ശരി